എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഗ്രാമത്തിൽ ഇപ്പം ഒരു വീട് വെക്കുമ്പം മീൻസ് നമ്മൾ എല്ലാം നോക്കുമല്ലോ അതായത് ഏതൊക്കെ സാഹചര്യം ആണ് മീൻസ് കാലാവസ്ഥ നോക്കും പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റിസ് നോക്കും അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള വാട്ടർ വാട്ടറിൻ്റെ വാട്ടർ ആണു ഏറ്റവും കൂടുതൽ വാട്ടർ അങ്ങനെ റോഡിൻ്റെ സൈസ് നമ്മൾ അത് എല്ലാം കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടാണ് നമ്മള ഗ്രാമത്തിൽ വെള്ള ഒരു വീട് വയ്ക്കുക അല്ലേ ഇപ്പോൾ നമ്മൾ എവിടെ വീട് വെച്ചാലും അങ്ങനെ അല്ലേ ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ അങ്ങോട്ട് ഒക്കെ ആണെങ്കിൽ വന്യജിവി വരാൻ ചാൻസ് ഉണ്ടോ എല്ലാം നമ്മൾ ആ കാര്യത്തിൽ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക വീട് വയ്ക്കുക ഓക്കെ അപ്പം ഘർകൽ യോജനയെ കുറിച്ച് എനിക്ക് വലിയതായിട്ട് അറിയില്ല ആ വീട്ടിൽ നമ്മൾ വയ്ക്കുന്ന ഗ്രാമങ്ങളെ പറ്റി ഞാൻ നമ്മൾ വയ്ക്കുന്ന വീടിനെ പറ്റി പറയുവാണെങ്കിൽ നല്ല ഒരു അത്യവശ്യം ഒരു മനു ഒരാൾക്ക് രണ്ട് മൂന്ന് പേർക്ക് ഒന്ന് കയറി കിടക്കാൻ പറ്റുന്നതിനനുസരിച്ചുള്ള വീടായിരിക്കണം അത് എപ്പോളും സെറ്റപ്പ് ആക്കുക എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ മറ്റേ ഇതിൻ്റെ ഒരു പാസ്ഔട്ട് ഇയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്വൻറ്റി വൺ ആണെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ആ ഒരു ഇയറിൽ ആണെന്ന് തോന്നുന്നു ഇത് കറക്റ്റ് ആയിട്ട് പോകുന്നത് അല്ലേ